കേരളീയരായ നമ്മൾ സമൂഹത്തിൽ സാംസ്കാരിക പാരമ്പര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ സംസ്കാരം നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗവുമാണ് വിദ്യാഭ്യാസമെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല എങ്കിലും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പറയാവുന്ന കാര്യം നമ്മൾ വളരെ അട അടക്കവും ഒതുക്കവും ഉള്ള വേഷങ്ങൾ ധരിക്കുന്നതും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ ഇടപെടാതെ നമ്മുടെ ഒരു ഡിസിപ്ലിനായിട്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ വളരെ സമൂഹത്തിൻ്റെ മുമ്പിൽ വൃത്തിയായ രീതിയിലും മറ്റുളള നല്ല രീതീയിലുള്ള വേഷധാരണങ്ങളുണ്ടാവണമെന്ന് ഉള്ള അഭിപ്രാ യമാണ് എനിക്കുള്ളത് നമ്മൾ വളരെ ഇപ്പോൾ സ്വർണത്തിനൊക്ക വില കൂടിയ ഈ അവസ്ഥയിൽ ആഭരണങ്ങളൊക്ക വളരെ കുറച്ചുപയോഗിക്കുന്ന നമ്മുടെ സേഫ്റ്റിയുടെ നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗവും കൂടിയാണ് ആഭരണങ്ങൾ അമിതമായി ഉപയോഗിച്ച് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നടക്കുന്ന തലമുറ ഇപ്പം മാറിയിരിക്കുയാണ് വളരെ കുറച്ചു മാത്രം ആഭരങ്ങളില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാം എന്ന് തെളിയിക്കുന്ന മറ്റുള്ള എല്ലാ ദേശത്തുള്ള ആളുകൾ ഇതിനൊന്നും വളരെ അധികം പ്രാധാന്യം കൊടുക്കില്ല കേരളീയരായ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് കൂടുതലും ആഭരണ വിഭൂഷിതരായിട്ട് നടക്കണമെന്നും അത് എല്ലാവരെയും സമൂഹത്തിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും ഓരോ തരം വസ്ത്രങ്ങളിട്ട് നമ്മളുടെ അത്യാവശ്യം വൃത്തിയായിട്ടുള്ള വസ്ത്രം വളരെ ലഘുവായിട്ടുള്ള ആഭരണങ്ങളും ധരിക്കുക വേഷവിധാനങ്ങളാണെങ്കിലും വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് അതല്ല ഉള്ളത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ നിലനിർത്തണം നമ്മുടെ സാംസ്കാരികമായിട്ട് വന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൽ കുറേതരം വിവിധ മതസ്ഥരായ ആളുകളുടേയും സംസ്കാരങ്ങളെ നമ്മൾ അങ്ങ് സ്വീകരിക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള നല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നല്ല മനുഷ്യരായി നിലകൊള്ളുന്നതിന് നമ്മളുടെ സംസ്കാരം നമ്മളെ രക്ഷിക്കും നമ്മൾ പ്രത്യേകിച്ചും കോട്ടയം ജില്ല എന്ന് പറയുന്നത് അക്ഷര വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നിലാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഈ നമ്മുടെ വേഷവിധാനങ്ങളും ആഭരണങ്ങളും നമ്മുടെ മറ്റുള്ളവരോട് വിജാതീയരായവരോ താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ ഇല്ലാ ഇല്ലാതെ എല്ലാവരെയും ഒരേ ഒരേ രീതിയിൽ നമ്മൾക്ക് നോക്കിക്കാണാനും സമൂഹത്തിൻ്റെ പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ നമ്മളുടെ സംസ്കാരം ഉപയോഗിച്ച് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ അതുപോലെത്തന്നെ സമൂഹത്തിനോട് നമ്മൾ ഇടപെടേണ്ട രീതീയിൽ നമുക്ക് നല്ല നല്ല രീതിയിൽ താഴ്ന്ന ഇടയിലുള്ളവരെയും പ്രായമായവരെയും എല്ലാവരെയുമൊക്കെ ഒരേ രീതിയിൽ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടും നമ്മൾക്ക് സാധിക്കും ഈ ഈ വസ്ത്രധാരണവും വേഷ വിധാനങ്ങളും ആഭരണങ്ങളും അണിഞ്ഞുള്ള ഈ പൊങ്ങച്ചത്തിനെക്കാളും നല്ലത് വളരെ സ മിതമായ രീതിയിൽ നല്ല രീതിയിൽ